ഹലോ ഊബർ ഓഫീസ് അല്ലേ ഞാൻ നിങ്ങളുടെ ഒരു കസ്റ്റമർ ആണ് ഞാൻ ഇവിടെ രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് രാത്രി ഒന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഒരു ക്യാബ് ക്യാബ് നമ്പർ കെ എൽ സീറോ എയ്റ്റ് സെവൻ എയ്റ്റ് സെവൻ നയൻ സീറോ അപ്പോൾ അതില് ഞാൻ നയിറ്റ് ആയിരുന്നു ബുക്ക് ചെയ്തത് നയിറ്റ് ഇവിടെ നിന്ന് തൃശ്ശൂര് നിന്നും ഞാൻ തിരുവനന്തപുരം വരെ പോയി അപ്പോൾ ഞാനതില് വെച്ച് ഞാന് ഒരു പേഴ്സും എൻ്റെ ഒരു വാലെറ്റും വെച്ച് മറന്നുപോയി അപ്പോൾ അതൊന്ന് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് അത് എടുക്കാൻ പിക്ക് ചെയ്യാൻ മറന്നുപോയതാണ് ഇന്ന് വണ്ടിയിലാണ് പോയത് ഐ ഗസ്സ് ഡ്രൈവറുടെ പേര് മഹേഷ് എന്നാണ് അപ്പോൾ ആളാണ് ആളുടെ വണ്ടിയില് വച്ചാണ് ഞാൻ മറന്നത് അതേ നൈറ്റ് ഒരു നയൻ തെർട്ടിക്കാണ് ബുക്ക് ചെയ്തത് നയൻ തെർട്ടിക്കാണ്ഇവിടന്ന് പോയത് അതേ അതേ ഓ ആ അതേ അതേ അതേ ആ നമ്പർ തന്നെയാണ് ഫോൺ നമ്പർ വേണേൽ ഞാൻ ഫോർവർഡ് ചെയ്യാം നിങ്ങൾക്ക് എൻ്റെ വാലറ്റുമുണ്ട് എൻ്റെ ഒരു പ്പേഴ്സുമുണ്ട് വാച്ചുണ്ട് രണ്ടും മൂന്നും ഞാൻ മറന്നു അവിടെ അതില് വെച്ച് ഐ തിങ്ക് ബാക്ക് സീറ്റില് ഡോറിൻ്റെ അവിടെയുള്ള ചെറിയ ഒരു പൌച്ച് പോലത്തെ ഇതിലാണ് ഞാൻ ഇട്ടത് എന്നാണ് എൻ്റെ ഓരോർമ ആ അത് കുറച്ച് ദിവസമായി വിളിക്കാൻ എനിക്ക് ടൈമ് കിട്ടിയിട്ടില്ല വർക്ക് ലോഡ് ഉള്ളത് കാരണം അതുകൊണ്ടാണ് വേഗം തന്നെ അതൊന്ന് കിട്ടിയിരുന്നെങ്കില് വളരെ നന്നായിരുന്നു ഉപകാരമായിരുന്നു അതാണ് നിങ്ങളെ വിളിച്ചത് ഇപ്പോൾ തന്നെ അതേ ആളിനോട് ഒന്ന് പറഞ്ഞ് ഒന്ന് എടുത്തുവെക്കുകയാണെങ്കില് അവിടെ വന്ന് കളെക്റ്റ് ചെയ്യാം ആണോ കൊണ്ടുവന്നു തരുമെങ്കില് ഓക്കെ അത് വലിയ ഉപകാരമായിരിക്കും ആ ഓക്കെ ഒന്ന് ആ അദ്ദേഹത്തിനെ വിളിച്ചൊന്ന് പറയൂ ഒന്നതൊന്ന് പിക്ക് ചെയ്ത് വെക്കൂ കൊണ്ടതരാൻ പറ്റുമെങ്കില് ഒന്ന് തന്നോളൂ ഓക്കേ